ഹലോ കേൾക്കുന്നുണ്ടോ കടയ്ക്കാ അമൃത ഹോട്ടൽസ് അല്ലേ നമ്മൾ അടുത്ത ആഴ്ച്ചയായിട്ട് ഒരു പാർട്ടി അവിടെ ഹോട്ടലിൽ വെച്ച് നടത്താൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു അപ്പം അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് നോക്കാമായിരുന്നു ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് എൻ്റെ സിസ്റ്റർടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്

കേക്ക് ഒക്കെ നിങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത് പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം ഓക്കെ ആ അപ്പോൾ ഫുഡ്ഡിൻ്റെ കേസ് എങ്ങനെയാണ് ഒരു ദിവസം സ്റ്റേ ആവശ്യം വരും കേട്ടോ

ഓക്കെ ഓക്കെ ഒരു ദിവസം ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേർ കാണും

സെപ്പറേറ്റ് റൂംസ് വേണം എല്ലാവർക്കും ഒരൂ നാല് പേർക്ക് കിടക്കാൻ പറ്റുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂംസ് വേണം ഓക്കെ ഓക്കെ എ സി വേണം എല്ലാ റൂമും എ സി ആയിരിക്കണം ആ പിന്നെ ഫുഡ്ഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ആ എന്നാൽ നമ്മൾ രാവിലെ എത്തും നമ്മ് പരിപാടി കണ്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈം എന്ന് പറയുമ്പം അന്ന് വൈകിട്ടാണ് പരിപാടി നടത്താൻ ഒരു ഒരൂ വൈകിട്ട് തിരിഞ്ഞ് പറയുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ

ആ രാവിലത്തെ ഫുഡ് എങ്ങനെയാണ് ഒരു അടുത്ത ഒരു പതിമൂന്നാം തീയതി ഈ മാസം പതിമൂന്ന് ആ ഓ പതിമൂന്ന് ആ ബുക്ക് ചെയ്യ് പരിപാടി ബുക്ക് ചെയ്തുതരാം കൺഫേം ആണ് ഞങ്ങൾ എത്തും ഓക്കെ ആ അപ്പം നമുക്ക് ഈ നൈറ്റ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫുഡ് അറേഞ്ച് ചെയ്യാൻ ഓക്കെ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് എല്ലാവരോടും ഒന്ന് ചോദിച്ചിട്ട് സംസാരിക്കാം അപ്പം ഞങ്ങൾക്ക് റൂമിലായിട്ട് ഫുഡ് എത്തിച്ച് തരുമോ അതോ പാർട്ടി നടത്താൻ പ്രത്യേകിച്ച് ഹാൾ ആയിട്ട് ആ ഓക്കെ ഓക്കെ ആ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടാണ് നമുക്ക് രാവിലെ എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുഡ് ഒരു ലൈറ്റ് ഫുഡ് ഒന്ന് കാപ്പി ഒന്ന് വയർ ഒന്ന് നിറയ്ക്കാൻ വേണ്ടി മാത്രം ഉച്ചയ്ക്ക് ബിരിയാണി ഫുഡ് നല്ലതായിരിക്കണം ഫുഡ് നല്ലതാണെന്ന് കേട്ടതുകൊണ്ടാണ് നമ്മൾ അവിടെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ നമ്മൾ അതിനാണ് ഓക്കെ പറ ഞങ്ങൾക്ക് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി മതി ആ ഓക്കെ ആണ് അതിനി നൈറ്റ് നമുക്ക് സ്പെഷ്യൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് ഡിഷ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക് അധികമായിട്ട് വല്ലതും വേണമെങ്കിൽ വിളിച്ച് പറയാം

ഓ ചൈനീസ് കുഴിമന്തി അപ്പോൾ അത് കൺഫേം ആക്കിയേര് അത് വേണം അങ്ങനെ ആ

അഡ്വാൻസ് എത്രയാണ് ഫുൾ എമൗണ്ട് എത്രയാണ് ഫുൾ എമൗണ്ട് വൺ ഡേ

അഡ്വാൻസ് എത്ര അയയ്ക്കണം ഒമ്പതിനായിരം രൂപ അഡ്വാൻസ് രണ്ട് ദിവസത്തേക്ക് അഡ്വാൻസ് ഒമ്പതിനായിരം രൂപ ഓക്കെ ഓക്കെ സൗകര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവല്ല് സൗകര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവല്ല്

ഓക്കെ ഓക്കെ ഓക്കെ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ പലതും പറയും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി അപ്പോൾ ഇന്നിപ്പോൾ ഏഴായില്ലേ ഇനി ഇന്നിപ്പോൾ ഏഴ് ആയില്ലേ തീയതി ആ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ അതിനുള്ളിൽ പരിപാടി ഒന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു